ഹലോ ആ ഇപ്പോൾ ലേറ്റസ്റ്റായിട്ടുള്ളതൊക്കെ ഏതൊക്കെയാണ്

ആൻഡ്രോയിഡ് മതിയാവും

ബജറ്റ് ഒരു ഇരുപത്തയ്യായിരം ആ അങ്ങനെ അതിൻ്റെ ചോട്ടില് താഴെയായിട്ട് ആ ആ

അല്ല റി റിയൽമി നോക്കാവുന്നതാണ് ചേട്ടാ

ഓക്കേ ആ

ആ മ് ഫൈവ് ജി ഓക്കേ മ് അപ്പോൾ വാറൻറി ഉണ്ടോ ഒരു വർഷത്തിനുള്ളില് മ് പെട്ടെന്ന് ഹാങ്ങ് ആവുന്ന അങ്ങനൊന്നും ഇല്ലല്ലോ അല്ലെ ആ

ആ മ് ഓരോ അപ്ലിക്കേഷൻ ഉണ്ടാവുമ്പോൾ ഹാങ്ങ് ആവും അല്ലെ ആ ഹീറ്റ് ആവുമല്ലൊ മ് ആ അങ്ങനെ

ഐ ക്യൂ ന്നാ ആ പുതിയതാണോ ഓക്കേ മ് അതെ അല്ല റിയൽമി നോക്കാന്ന് പറഞ്ഞിട്ടായിരുന്നു ആ ഓഫറുണ്ട് ഓക്കേ ആ പർച്ചേസ് ചെയ്യാം നോക്കാം ഇ എം ഐ ല് എത്ര മാസം ഇ എം ആ ആ ആ ആ ഇ എം ഐ ലെടുക്കാം ആറ് മാസത്തിൻ്റെ ഓക്കേ ആ ആ ആ ഓക്കേ താങ്ക്യൂ